ഇത് ഇലക്ട്രിസിറ്റി ഓഫീസ് അല്ലേ

ബില്ലുകളൊക്കെ സൂക്ഷിക്കുന്ന ആളാണ് എൻ്റെ കഴിഞ്ഞ മാസത്തെ വൈദ്യുതി ബില്ലിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിൽനിന്നും അത് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു എനിക്ക് കഴിഞ്ഞ മാസത്തെ ആ വൈദ്യുതി ബില്ലിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തരാൻ സാധിക്കുമോ ആ ആ ആ നാളെ തന്നെ വന്ന് അതിൻ്റെ കോപ്പി വാങ്ങിച്ചോളാം ശരി താങ്ക് യൂ